ആ എന്താ ടീച്ചറേ ഞാൻ വേദേൻ്റെ അമ്മ ആണ് എന്തേലും പ്രശ്നം ഉണ്ടോ ആ പ്രശ്നം ആ ഇല്ല പറയത്തക്ക വിധത്തിൽ ഉള്ള കുഴപ്പം ഒന്നും ഉള്ളത് ആണ് അവക്ക് കുഴപ്പമുള്ളത് ആയിട്ട് എനിക്ക് തോന്നീട്ട് ഇല്ല പിന്നെ എന്താ പറ്റിയേന്ന് അറിയില്ല മിസ്സേ എന്നിട്ട് ഇപ്പോൾ അവൾ കിടക്കുവാണോ എന്താ അവളുടെ അവസ്ഥ ഞാൻ വരട്ടെ ഞാൻ വന്ന് കൂട്ടാം എന്ന് വിചാരിക്കുന്നു ആ രാത്രി നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാസ്റ്റ് ഫുഡ്ഡ് കഴിച്ചിട്ട് ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഈ ഛർദി വന്നിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യാം ടീച്ചറെ ഞാൻ ഞാൻ വിചാരിക്കുന്നു അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോവാന്ന് എന്നാൽ ഞാൻ വന്ന് കൂട്ടട്ടെ കുഴപ്പോല്ലല്ലോ അവൾക്ക് അത്ര വലിയ കുഴപ്പം ഇല്ലെങ്കിൽ ഞാൻ വന്ന് കൂട്ടാം അത് അല്ല ഇനി ഛർദിക്കുവാണ് എന്ന് ഉണ്ടെങ്കിൽ എന്നെ കാത്ത് നിക്കണ്ട ടീച്ചറ് നിങ്ങൾ കൊണ്ടോയിക്കോളൂ എന്തായാലും തൊട്ട അടുത്ത് തന്നെ അല്ലേ ക്രിസ്തുരാജാ ഹോസ്പിറ്റൽ ഉള്ളത് നമുക്ക് അവിടന്ന് അവിടെക്ക് കൊണ്ട് വന്നാൽമതി എന്നാൽ എന്താ അവസ്ഥ ഇപ്പോൾ അവസ്ഥ അവസ്ഥ എങ്ങനെ ആണ് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കോളാം അത് അല്ല ഇനി ഛർദിക്കുന്നുണ്ട് അവൾക്ക് അത്ര ക്ഷീണം ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കൊണ്ട് പോകാവോ ഞാൻ അപ്പഴ്ത്തേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തായിരുന്നു ആ എന്നാൽ ഓക്കെ ടീച്ചറെ ഞാൻ എന്നാൽ വേഗം ഹോസ്പിറ്റലിലേക്ക് വരാം നിങ്ങൾ അധികം ലേറ്റ് ആക്കാൻ നിൽക്കണ്ട വേഗം തന്നെ പൊയ്ക്കോളൂട്ടോ ആ എന്നാൽ ശരി ടീച്ചറെ ഓക്കേ